നമ്മുടെ മലയാളഭാഷയെ സംബന്ധിച്ചെടുത്തോളം നമുക്ക് മലയാളികൾക്ക് പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഭാഷയാണ് മറ്റു ലാംഗ്വേജിനെ അപേക്ഷിച്ച് നമുക്ക് നമ്മുടെ ഭാഷ പഠിക്കാൻ എളുപ്പമാണ് പക്ഷെ മറ്റൊരാൾക്ക് അതായത് സിക്ക് ഹിന്ദു സിക്ക് പഞ്ചാബി ഉറുദു അങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് നമ്മുടെ ഭാഷ പഠിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചിലപ്പം കുറേനാൾ നമ്മൾ ഒരാളുമായിട്ട് ഇടപഴകി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കേട്ടാൽ മനസ്സിലാവുമെന്നല്ലാതെ നമുക്ക് നമ്മുടെ ഭാഷയും നമ്മുടെ അക്ഷരങ്ങളും നമ്മുടെ വ്യാകരണങ്ങളൊക്കെ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് സംഭവിച്ചാൽ നമുക്ക് പക്ഷെ അവരുടെ ഭാഷകളൊക്കെ നമുക്ക് പെട്ടെന്ന് പഠിക്കാനുമായിട്ടൊ ക്കെ എളുപ്പമാണ് പക്ഷെ നമ്മുടെ ഭാഷയെന്ന് വച്ചാൽ ഒരുപാട് വ്യാകരണങ്ങളും അർത്ഥങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നമുക്ക് പഠിക്കാനായിട്ട് ഭയങ്കര നമുക്കെളുപ്പമാണ് പക്ഷെ മറ്റുള്ളവരെ സംബന്ധിച്ച് അത് പഠിക്കാനായിട്ട് ഭയങ്കര പാടാണ് അതുപോലെന്നെ മലയാളിയെ സംബന്ധിച്ച് നമുക്ക് മറ്റുള്ളവരുടെ ലാംഗ്വേജുകളെ ഉറുദു സിക്ക് പഞ്ചാബി അതൊക്കെ നമുക്ക് ഒരു വിധം നമുക്ക് ഒരുപാട് ഇടപെട്ടു കഴിയുമ്പോൾ നമ്മളത് പെട്ടെന്നുതന്നെ കേട്ട് പഠിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ മലയാളം ഭാഷയെ അവർക്ക് അവർ അവരെ ഭാഷയുമായിട്ട് താരതമ്യം ചെയ്യുന്നതിനാൽ അത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് കാണുന്നത് നമ്മുടെ മലയാളം ഭാഷരീതികളും വ്യാകരണങ്ങളും ഉച്ചാരണവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് പഠിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം നമ്മുടെ ഭാഷ വേറെയേത് ഭാഷയോട് താരതമ്യം ചെയ്താൽ ഒരിക്കലും ചെയ്യാൻ പറ്റത്തും പറ്റുകയില്ല കാരണം നമ്മുടെ ഈ ഭാഷ നമുക്ക് മാത്രം കൈകാര്യം ചെയ്യുന്നപോലെ മറ്റുള്ളവർക്ക് അതത്ര എളുപ്പമായിട്ട് അവർക്ക് അവരത് മലയാളം ഭാഷയെ കാണണമെന്നും ഇല്ല